ഞാന് വളരെ ചെറുപ്പം തൊട്ടുതന്നെ നെയ്ത്തും തുന്നലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് അതായത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടു നമ്മള് തന്നെ ചെയ്യുക എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് പിന്നെ ഞാന് ആദ്യം വീട്ടിലിരുന്ന് മെഷീനില് അങ്ങനെ പഠിച്ചിട്ട് പിന്നെ യൂ ട്യൂബ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടു പഠിച്ചു പിന്നെ നമ്മളെ ഇഷ്ടത്തിനും ഒക്കെ ഇതാക്കണമെന്നുണ്ടെങ്കില് ഒരിക്കലും വേറൊരാളുടെയടുത്തു കൊടുത്താല് നമ്മള്ക്കു നമ്മളൊരു തൃപ്തിക്കനുസരിച്ചാവില്ല പിന്നെ അതൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് ജസ്റ്റ് നമ്മള് ഇതിലും ഷേപ്പെയ്തു കൊടുത്താല്ത്തന്നെ പത്തും നാല്പതും രൂപ ഒരിതില്ത്തന്നെ കിട്ടും അപ്പോള്പ്പിന്നെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റാണ് ആ കാര്യത്തില് നമ്മുടെ തന്നെ കുട്ടികളുടെ ഡ്രസ്സും ഒക്കെ തുന്നല് വിട്ടാലും ഒക്കെ നമുക്ക് സുഖമായിട്ട് ആരെയും പോയി ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കില് നമ്മള് സൂചിയും നൂലും ഒക്കെ എടുത്ത് തുന്നേണ്ടിവരുമല്ലോ പിന്നെ പൺകുട്ടികളൊക്കെ ഉണ്ടെങ്കില് അതും നമ്മള്ക്ക് ഇഷ്ടംപോലെ ഉടുപ്പുകളോ ഒക്കെ തയ്പ്പിച്ചുകൊടുക്കാം പിന്നെ അപ്പോള് നമ്മള് ഒരു ടെക്സ്റ്റൈൽസില് പോയി എടുക്കുകയാണെങ്കില് എല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആയിക്കൊള്ളണമെന്നില്ല അപ്പോള് നമ്മള് സ്വന്തമായിട്ടെടുക്കുകയാണെങ്കില് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചു തുന്നാം പിന്നെ പിന്നെ ഞാന് തുടരാനുള്ള പ്രചോദനമെന്നു പറഞ്ഞാല് ഇപ്പോഴത്തെ പുതിയ പുതിയ മോഡലുകളും ഒക്കെ കാണുമ്പോള് അതിനോടൊരു ഇത് പിന്നെ ഇപ്പോള് നമ്മളൊരു വീട്ടിലിരുന്നു തയ്ച്ചാല്ത്തന്നെ അത്യാവശ്യം നമുക്ക് ക്യാഷ് സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ളേ അപ്പോഴതു ഭർത്താവിനെയോ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ അതുകൊണ്ടാണ് അയില് തുടരാനുള്ള താല്പര്യം അപ്പോഴത്തെ ട്രെൻഡ്സും അപ്പോള് നമുക്കിപ്പോള് അറിയാൻ വേണ്ടി യൂ ട്യൂബും കാര്യങ്ങളും പിന്നെ അതിനായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് അങ്ങനെയാണ് അതിങ്ങനെ തുടരാനായിട്ടു ഞാൻ ശ്രമിച്ചത് നമുക്കിഷ്ടമുള്ള നമ്മളെ പേഷനനുസരിച്ചു ചെയ്താല് നമ്മള് എന്തായാലും അതിന്റെ സന്തോഷമുണ്ടാവും നമ്മളെ കൈകൊണ്ട് ഒരു പത്തു രൂപ ഉണ്ടാക്കിയാല് അതു നമ്മള്ക്കൊരു സന്തോഷമാണല്ലോ അതൊക്കെ തന്നെ പിന്നെ ഇതേപോലെ തന്നെ നമുക്കു വേണമെങ്കില് ഒരു മിച്ച ഓർഡർ എടുത്ത് കുട്ടിയുടുപ്പുകളും അങ്ങനെ ഡാൻസിനു വേണ്ടിയിട്ടും അങ്ങനെയൊന്നും ആരും കടകളാശ്രയിക്കുകയില്ല ഞങ്ങളെ പോലുള്ളവരെയാണ് ആശ്രയിക്കുക അപ്പോള്ത്തന്നെ സീസണാകുമ്പോള് നമുക്ക് അത്യാവശ്യം ഈ വാർഷികം സ്കൂളില് അങ്ങനത്തെയൊക്കെ ആവുമ്പോള് തന്നെ അത്യാവശ്യം ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ അതേപോലെ എന്ത് ഡാൻസ് കോസ്റ്റ്യൂമാണെങ്കിലും ആൾക്കാര് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും അങ്ങനെ ആ സ്ഥിരമായി ഓർഡര് കിട്ടുന്നതു തന്നെയാണ് ഇതിൻ്റൊരു പ്രചോദനം എന്നു പറയുന്നത്